എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളെല്ലാവരും നല്ല രീതി ചിത്രം വരക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ എല്ലാ രീതിയിലും നല്ല പോലെ എല്ലാം ഡ്രോയിങ് ചെയ്യണം പിന്നെ അതിന് വേണ്ടി ഡെഡിക്കേഷനോടെ നിന്ന് പ്രവർത്തിക്കുകയും വേണം പിന്നെ ഇന്നത്തെ തലമുറ ആയ ആയതിനാൽ എല്ലാ പിള്ളേരുടെ കൈയ്യിലും മൊബൈൽ ഫോണിൻ്റെ യൂസേജ് കൂടുതലാണ് അതിനാൽ ഡ്രോയിങിൻ്റെ ഡ്രോയിങിലേക്ക് ഉള്ള താത്പര്യം എല്ലാ പിള്ളേരിലും ഇപ്പം കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഡ്രോയിങ് എന്ന കലയിലേക്ക് തിരിയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഒരു തുടക്കകാരൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ആദ്യമേ വരച്ച് തുടങ്ങുക എന്ന് പറയുന്നത് മലയും കുന്നും പ്രകൃതിയൊക്കെ ആണല്ലോ അപ്പോൾ അതിലേക്ക് കുട്ടികളെ കൂടുതലായിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം നമ്മൾ ചെയ്യാൻ അപ്പ അങ്ങനെ രീതിയിൽ ഇന്നത്തെ കാലത്ത് സ്കൂളുകളിൽ ആണെങ്കിലും കുറേ അധികം കോംപറ്റീഷനുകളും മറ്റും എല്ലാം നടക്കുന്നുണ്ട് ആയതിനാൽ നമ്മൾ കുട്ടികളെ കൂടുതലായും ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് അവരിലെ അഭിരുചി എന്ന് പറയുന്ന കല നമ്മൾ വളർത്തി എടുക്കുകയും വേണം ചെയ്യാൻ അങ്ങനെ നമുക്ക് നല്ലൊരു തലമുറ തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കും പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ധാരാളം ബുദ്ധിയും കഴിവുകളും കിട്ടാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഡ്രോയിങ് എന്ന് പറയുന്നത് ഡ്രോയിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം ചിന്തിക്കാനും അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുവാനും സഹായിക്കുന്നു ഉദാഹരത്തിന് ഇപ്പോൾ ഒരു ഡ്രോയിങ് വരാക്കുകയാണെങ്കിൽ പ്രകൃതിയെ പറ്റിയാണെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ ആദ്യം കാണുക എന്ന് പറയുന്നത് മരങ്ങളും പച്ചപ്പും മലയും കുന്നും ഒക്കെ ആയതിനാൽ നമ്മൾ അതിനെ കണക്കാക്കുന്നത് തന്നെ പ്രകൃതി എന്ന് പറയുമ്പോൾ അമ്മയായിട്ടല്ലേ കണക്കാക്കുന്നത് അപ്പം പ്രകൃതി അമ്മ ആയതിനാൽ ധാരാളം സബ്ജെക്റ്റ് അതിൽ തന്നെ നമുക്ക് അടങ്ങിയിരിക്കുന്നു അങ്ങനെ ആയതിന് നമുക്ക് കൂടുതലും ബുദ്ധി കുറേക്കൂടി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അതുകൊണ്ട് ഡ്രോയിങ് എന്ന് പറയുന്ന കല നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു കല തന്നെയാണ് കുട്ടികളെ കൂടുതലായും നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയും അവരിൽ അതിന് ഡ്രോയിങ് ചെയ്യാൻ ഉള്ളൊരു ത്വര വളർത്തിയെടുക്കുകയും നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്നത്തെ തലമുറക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സബ്ജക്റ്റാണ് ഡ്രോയിങ് എന്ന് പറയുന്നത് ഇപ്പം ബിഗിൻ ഇപ്പം ഒരു ആ ഒരു ഒരു കുട്ടി വരച്ച് തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ മലയും കുന്നും മരങ്ങളും കാക്കയും അങ്ങനെയുള്ള ഒരു രീതിയിൽ ആയിരിക്കുമല്ലോ വരച്ച് തുടങ്ങുന്നത് അങ്ങനെ ആയത് കൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കളിയാകാത്ത രീതിയിൽ അവരെ കൊള്ളാം എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അവരെ ബൂസ്റ്റ് ചെയ്യിച്ച് അങ്ങനെ അങ്ങനെ വരപ്പിക്കുകയും അതിലേക്ക് വളർത്തിയെടുക്കുകയും വേണം ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതലായും ചിത്രം വരക്കാനുള്ള ഒരു ത്വരയും ആ ഒരു ഒരു താത്പര്യം ഒക്കെ വളർത്തിയെടുക്കാൻ നമ്മൾ സഹായിക്കണം പിന്നെ അവർക്ക് വേണ്ടിയ ഡ്രോയിങ് മെറ്റീരിയൽസും ടൂളും എല്ലാവരും മേടിച്ച് കൊടുക്കുകയും അവർക്ക് ആവിശ്യമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതലായും ചിത്രം വരക്കുവാനും സഹായിക്കുന്നു പിന്നെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയും വേണം കാരണം കാരണം ഒരു നിശ്ശബ്ദമായ ഒരു സ്ഥലത്ത് ആണെങ്കിൽ ധാരാളം ചിന്തിക്കാനും അതിലേക്ക് വരുന്ന ഓരോരോ സബ്ജെക്റ്റുകളും നമുക്ക് ഒപ്പിയെടുക്കാൻ സഹായിക്കുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഈ കുട്ടികൾ എല്ലാവരും മൊബൈൽ ഫോണിൽ ഇരികുന്നതിലൂടെ ഈ ചിത്രര ചിത്രം വരക്കാനുള്ള ഒരു താത്പര്യം അവരിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ അത് മൊബൈൽ ഫോണിൻ്റെ യൂസേജ് കുറക്കുകയും ഡ്രോയിങിലേക്ക് വഴിനടത്തുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ലൊരു നമുക്ക് വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു ഡ്രോയിങ് നിന്ന് ഇപ്പോൾ ഒരു ഡ്രോയിങ് വരച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ആണെങ്കിൽ ആദ്യം വരക്കുക പ്രകൃതിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ആയത് കൊണ്ട് അതിന് പല മെത്തേഡുകൾ ഉണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നമ്മളിപ്പം പ്രകൃതി അങ്ങനെയൊക്കെ വരച്ച് വരുന്ന രീതിയിൽ പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ അതിലേക്കുള്ള ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷെയ്ഡിങ് ആണ് ഷെയ്ഡിങ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് സ്റ്റെപ്പ് ഷെയ്ഡിങ് ഉണ്ട് മൂന്നല്ല മൂന്ന് നാല് ടൈപ്പ് ഓഫ് ഷെയ്ഡിങ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഷെയ്ഡിങ് ആണ് അപ്പോൾ അപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഷെയ്ഡിങ്സ് ഉണ്ട് ആ ഷെയ്ഡിങ് ഇതൊക്കെയാണ് ഒന്ന് നൈസായിട്ട് അതായത് കട്ടി കുറച്ച് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങുക അതിന് ശേഷം വീണ്ടും ഇച്ചിരി കട്ടി കൂട്ടി എടുക്കുക അതിന് ശേഷം ഏറ്റവും അവസാനം ഡാർക്ക് ഷെയ്ഡിലേക്ക് ആക്കുക അങ്ങനെയാണ് നമുക്ക് ഒരു ഡ്രോയിങ് ചെയ്യാൻ സഹായിക്കുന്നത് പിന്നെ ഈ ഷെയ്ഡ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അധികം ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ് ക്ഷമ എന്ന് പറയുന്നതാണ് ഡ്രോയിങിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്രോയിങ് ചെയ്യുന്നതിലൂടെ അതായത് നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്യാൻ എടുക്കുക ഒരു സ്ഥലം തെറ്റിപ്പോയി അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും ആ ഡ്രോയിങ് നശിപ്പിച്ച് കളയാനുളള ഒരു പ്രവണത ഉണ്ടാകും അപ്പം നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ നൈസായിട്ട് ക്ഷമ കെട്ടിരുന്നു ഡ്രോയിങ് ചെയ്യില്ല കാരണം ഒരു തവണ ഒരു പടവും നമുക്ക് സെറ്റാകത്തില്ല ഒറ്റ പ്രാവശ്യം വരക്കുമ്പത്തേക്കും ഒരു ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം വരകുമ്പോളായിരിക്കും ഒരു പോർഷൻ കറക്റ്റ് ആകുക അപ്പം അത്രയും ക്ഷമകെട്ട് ഇരുന്ന് വരക്കുക അങ്ങനെ ചെയ്താൽ ഇത് ഡെഡിക്കേറ്റഡായിട്ടിരുന്നു ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ക്ഷമയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പം ക്ഷമ ഇല്ലാതെ നമുക്ക് ഡ്രോയിങ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഈ ഷെയ്ഡിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമുള്ള അടുത്ത സ്റ്റെപ്പാണ് പെൻ ഡ്രോയിങ് അതായത് ഹാച്ചിങ് മെത്തേഡ് ഒരു നാലഞ്ച് ടൈപ്പ് ഓഫ് ഹാച്ചിങ്സ് ഉണ്ട് ഹൈ ഹാച്ചിങ് പിന്നെ അങ്ങനെ അങ്ങനെ പലതരം ഹാച്ചിങ് മെത്തേഡുകൾ ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോളാണ് നമ്മൾ ലാൻഡ് സ്കേപ്പ് അഥവാ കാരികേറ്റർ സ്കെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുക അതായത് നമ്മളിപ്പോൾ ഒരു സ്പോട്ടിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ നോക്കി വരക്കുക അങ്ങനെയുള്ള ഒരു രീതി അതായത് അതിന് ധാരാളം പ്രാക്ടീസ് വേണം നമ്മൾ ക്ഷമ വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാനോ സ്പോട്ടിൽ വരക്കാനോ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ നമ്മുടെ കഴിവ് വളർത്തിയെടുക്കാനും കുറേക്കൂടി ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഉള്ള മെത്തേഡാണ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് കളറിംഗ് എന്ന് പറയുന്നത് കളറിംഗ് എന്ന് പറയുമ്പോൾ വാട്ടർ കളറിംഗ് ആയിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഈ കാലത്ത് ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് അപ്പോൾ വാട്ടർ കളറിൽ ധാരാളം സ്റ്റെപ്പ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുക